ഹലോ മന്ത്ര ആയുർവ്വേദ ചികിത്സ കേന്ദ്രം നിങ്ങളുടെ പേര് ഒന്ന് പറയാമോ ഓക്കെ മാഡത്തിന് ഏത് ചികിത്സ ആണ് വേണ്ടത് അത് ആണോ വേണ്ടത് എത്ര ദിവസത്തെ ചികിത്സ ആണ് മൂന്ന് മാസത്തെ ഉണ്ട് പിന്നെ ആറ് മാസത്തെ ഉണ്ട് നിങ്ങൾക്ക് ഏതാ സൗകര്യം അതുപോലെ ചെയ്യാം രണ്ട് മാസത്തെ ഇല്ല പിന്നെ ഒരു മാസത്തെ ആണ് ഉള്ളത് ആ മാഡം എത്ര ദിവസം ചികിത്സ ആണ് എടുക്കുന്നത് നമ്മള് കേന്ദ്ര തലത്തിലേക്ക് കൊടുക്കാൻ ആവുന്ന എല്ലാ ചികിത്സയും കൊടുക്കും മുടിക്കും പിന്നെ ഭക്ഷണം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കൽ അങ്ങനത്ത എല്ലാം കൊടുക്കുന്നുണ്ട് രണ്ട് ആൾക്കാർക്ക് നിർത്താം കൂടുതൽ ആൾക്കാരെ നിർത്താൻ പറ്റില്ല മൂന്ന് മാസത്തെ മുപ്പതിനായിരം ആറ് മാസത്തേക്ക് എഴുപതിനായിരം ആണ് പൈസ വരുന്നത് നമ്മുടെ കേന്ദ്രത്തിൽ നിങ്ങക്ക് മൂന്ന് മാസം അല്ലേ വേണ്ടത് കണ്ണൂര് തലശ്ശേരി മാളിന് തൊട്ടടുത്താണ് വരുന്നത് നിങ്ങൾ ഏത് ഇതിന് മുമ്പ് വന്നിട്ട് ഉണ്ടോ കണ്ണൂര് ആ അവിടെ തന്നെ ആണ് നമ്മള് പത്ത് മണി ആകുമ്പോൾ തുറക്കും ആ ഞായറാഴ്ച ഉണ്ടാകും ആ ഓക്കെ